ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറയില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹില് പാലസ് മ്യൂസിയമാണ് ആ മ്യൂസിയത്തില് പണ്ട് കാലത്തെ രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്ന വേഷവിധാനങ്ങള് അവരുപയോഗിച്ചിരുന്ന മാലകള് അതുപോലെതന്നെ അവരുപയോഗിച്ചിരുന്ന ആടയാഭരണങ്ങള് അതുപോലെതന്നെ അവരുടെ വ വാള് പരിച അവരുപയോഗിച്ചിരുന്ന വണ്ടികള് രാജകൊട്ടാരത്തിലേക്ക് പോക്കോണ്ടിരുന്ന വണ്ടികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒരു മ്യൂസിയം പോലെ ഹില് പാലസിലിപ്പഴും കാത്ത് സൂക്ഷിക്കുന്ന സ്ഥലവാണ് അത്കൂടാണ്ട് തൃപ്പൂണിത്തുറ സ്റ്റാച്ചു ജംഗ്ഷനില് തി മധ്യതിരുവിതാംകൂര് രാജാവിന്റെ ഒരു പ്രതിമ ഒരു സ്മാരകം ഇപ്പഴും പണ്ട് കാലം മുതലേ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പഴും നല്ല രീതിയില് കാത്ത് സൂക്ഷിച്ച് പോകുന്ന അതുപോലെതന്നെ രണ്ട് കോട്ടകളുണ്ടവിടെ കിഴക്കേക്കോട്ടയും വടക്കേക്കോട്ടയും അത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഒരുരു പ്രകാരം രാ രാജാവ് രാജകീയ ഭരണമായത് കൊണ്ട് അവിടെ ഓരോ കോട്ടകള് സ്ഥാപിച്ചത് എന്നുവെച്ച് കഴിഞ്ഞാൽ ആ എ വടക്ക് സൈഡില് വരുന്നവർക്ക് വടക്കേക്കോട്ടയിലൂടെയും കിഴക്ക് സൈഡില് വരുന്നവർക്ക് കിഴക്കേ കിഴക്കേക്കോട്ടയിലൂടെയും കൂടി വരാന് വേണ്ടിയിട്ടാണ് ആ കോട്ടകളവിടെ സ്ഥാപിച്ചിരുന്നത് അതുകൂടാതെ ന അവിടെ ഒരമ്പലം ഉണ്ട് ശ്രീ പൂര്ണ്ണത്രയീശ ക്ഷേത്രം എന്നുവെച്ച് കഴിഞ്ഞാൽ അതൊരു സന്താനഗോപാല മൂര്ത്തിയുടെ ക്ഷേത്രമാണ് അവിടെ കുട്ടികളില്ലാത്തവര്ക്ക് വേണ്ടിയിട്ട് വഴിപാടുകളും നടത്തി നല്ല രീതിയില് കുട്ടികള് ഉണ്ടാവുകയും പ്രാര്ത്ഥിച്ചാല് നടക്കാത്ത ഒരു കാര്യങ്ങളും ആ അമ്പലത്തില് ഇല്ല വളരെ വളരേ പ്രസിദ്ധമായൊരമ്പലമാണ് ശ്രീ പൂര്ണ്ണത്രയീശ ക്ഷേത്രം